സംസ്ഥാനത്തെ കർഷകരുടെ അവസ്ഥ പലപ്പോഴും മാധ്യമങ്ങൾ ചർച്ചക്കെടുക്കുമ്പോള് മാധ്യമങ്ങൾ കർഷകരെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു സമീപനമാണു പലപ്പോഴും സ്വീകരിക്കാറുള്ളത് ഒരു വാർത്താമാധ്യമങ്ങളും കർഷകർക്കനുകൂലമായ നിലപാടു സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണു മറ്റൊരു വസ്തുത അതിനു കാരണം അവര് കുത്തകകളുടെ കൂട്ടത്തിലാണ് എന്നും നിലകൊള്ളുന്നതും നിലകൊണ്ടിട്ടുള്ളതും ഇങ്ങനെയൊരു പ്രത്യേക സാഹചര്യത്തില് കർഷകർ എന്തു ചെയ്യണം എങ്ങനെ മുന്പോട്ടു പോകണം എന്നതിനെപ്പറ്റി പലപ്പോഴും ചിന്തിക്കാറുണ്ട് കർഷകർക്കു സംഘടിക്കുവാനോ അവരെ സംഘടിപ്പിച്ചു നിർത്തുവാനോ ആരും തയ്യാറാകുന്നില്ല അതുകൊണ്ടു തന്നെയാണു പലപ്പോഴും മാധ്യമങ്ങളും കർഷകർക്കെതിരായിട്ടു നിൽക്കുന്നതും കർഷകർക്കനുകൂലമല്ലാത്ത നിലപാടു സ്വീകരിക്കുന്നതും അപ്പോഴതുകൊണ്ട് മാധ്യമങ്ങൾ സത്യസന്ധത പുലർത്തുന്നില്ല എന്നുള്ളതാണു പലപ്പോഴും നമുക്കു മനസ്സിലാകുന്നത് മാധ്യമങ്ങൾ സത്യസന്ധത പുലർത്താത്തതിൻ്റെ കാരണം ഈ കുത്തക സംവിധാനം കേരളത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് അവരുടെ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് എന്നാണു ഞാൻ മനസ്സിലാക്കുന്നത് പലപ്പോഴും കർഷകരുടെ അവസ്ഥ ദയനീയമാണ് ആ ദയനീയ അവസ്ഥയില് അവരെ സപ്പോർട്ട് ചെയ്യുവാനോ അവരെ സഹായിക്കുവാനോ ഒരു മാധ്യമങ്ങളും ഈ അടുത്ത കാലത്തൊന്നും ഒരു മാധ്യമങ്ങളും മുന്പോട്ടു വന്നതായി മനസ്സിലാക്കിയിട്ടില്ല എന്തായാലും ഇതിന് ഒരു മാറ്റം വരേണ്ടതും വരുത്തേണ്ടതും വളരെ അത്യാവശ്യമാണ് കാരണം കാർഷിക മേഖല എല്ലാംകൊണ്ടും തകർന്നു തരിപ്പണമായിട്ടു നിൽക്കുന്ന ഈ കാലഘട്ടത്തില് മാധ്യമങ്ങൾക്കു സഹായിക്കാൻ പറ്റുന്ന ഒത്തിരി സംവിധാനങ്ങൾ ഉണ്ട് മാധ്യമങ്ങളുടെ ഇടപെടൽ മൂലം കാർഷിക ഉൽപ്പന്നങ്ങൾക്കു ന്യായമായ വില ലഭിക്കാവുന്ന ഒരു സ്ഥിതി വിശേഷവുമുണ്ട് പക്ഷെ അതിനൊന്നും ആരും മുതിരുന്നില്ല വിഭിന്നമായിട്ടുള്ള ഒരു ചിന്തകളും ചിന്താരീതികളും ആ കാര്യത്തില് മാധ്യമ സൃഷ്ടി എന്നു പറയുന്നത് കർഷകർക്ക് ഒരിക്കൽ പോലും ഒരു ഒരു സപ്പോർട്ടായിട്ടു വരുന്നില്ല അതിനു മാധ്യമങ്ങൾക്ക് അവരുടെമേൽ സമ്മർദ്ദം ചെലുത്തുവാനായിട്ട് നമുക്കെന്തു ചെയ്യാന് കഴിയും എന്നുള്ളത് ഒറ്റയ്ക്കായിട്ടും കൂട്ടായിട്ടും ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് പക്ഷെ അതിനും ഈ കർഷകരെ സംബന്ധിച്ചിടത്തോളം അവരെ കൂട്ടിയോജിപ്പിച്ചു കൊണ്ടുപോവാനുള്ള ഒരു സംവിധാനം കർഷക സംഘടനകളോ അതുപോലെ തന്നെ അതിനു നേതൃത്വം കൊടുക്കുന്ന ആളുകളോ ഒരിക്കൽ പോലും അതിനു വേണ്ടി തയ്യാറാവുന്നില്ല കർഷക സംഘടനകളെ സംബന്ധിച്ചിടത്തോളം അവര് നേതൃ സ്ഥാനത്തു വരിക എന്നുള്ളതു മാത്രമാണ് അവരുടെ ലക്ഷ്യം അതിനപ്പുറത്തേക്ക് സംഘടനകളൊന്നും ചെയ്യുന്നില്ല അല്ലെങ്കിൽ സംഘടനകൾ വന്നുകഴിഞ്ഞാല് അവര് പിരിവെടുക്കുന്നു അവരുടേതായ കാര്യങ്ങളുമായിട്ടു മുന്പോട്ടുപോകുന്നു അതിനെതിരെയും പ്രതികരിക്കേണ്ട സമയം കഴിഞ്ഞു പക്ഷെ ആരു പ്രതികരിക്കും പ്രതികരിക്കേണ്ടവരെല്ലാം നിശ്ശബ്ദത പാലിക്കുന്നു അതുകൊണ്ടുതന്നെയാണു നമുക്കു പലപ്പോഴും ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത് കർഷകരെ കാർഷിക മേഖലയെ തന്നെ സപ്പോർട്ട് ചെയ്ത് കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്കു ന്യായമായ വില ലഭിക്കുന്നതിനും കർഷകരുടെ ഉന്നമനത്തിനുംവേണ്ടി ഈ മാധ്യമ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്കു തീർച്ചയായിട്ടും സഹായിക്കാൻ കഴിയും പക്ഷെ എന്തുകൊണ്ടോ അവരൊരിക്കൽപ്പോലും അങ്ങനെയൊരു വാർത്താപ്രാധാന്യം ലഭിക്കുന്നതിനുവേണ്ടി മാത്രം അവര് എന്തെങ്കിലുമൊക്കെ എഴുതിക്കൂട്ടിവയ്ക്കുന്നു അതിനപ്പുറത്തേക്ക് അവരാരും ഒന്നും സഹായിക്കുന്നില്ല എന്നുള്ളതാണു മറ്റൊരു വസ്തുത അപ്പോള് ഇതിന് ഒരു സമൂലമാറ്റം തന്നെ സംഭവിക്കേണ്ടിയിരിക്കുന്നു അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നം തന്നെ അല്ലെങ്കിലൊരു ഇടപെടൽ തന്നെ ഉണ്ടാവണം എന്നുള്ളതാണ് യഥാർത്ഥത്തില് ചെയ്യേണ്ടത് മാധ്യമങ്ങൾക്കു ധാരാളം കാര്യങ്ങൾ ചെയ്യാന് പറ്റും ഒരു മാധ്യമങ്ങളും ശരിയായ രീതിയില് റിപ്പോർട്ട് കൊടുക്കുകയോ കർഷകൻ്റെ യഥാർത്ഥ ഒരു പ്രശ്നം അല്ലെങ്കില് യഥാർത്ഥ ഒരു അവസ്ഥ സാധാരണ ജനത്തെ ബോധ്യപ്പെടുത്തുവാന്പോലും അവർക്കാവുന്നില്ല അതാണ് യഥാർത്ഥത്തില് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആയതിൻ്റെപേരില് ഇതിനൊരു മാറ്റം വരുത്തുന്നതിനാവശ്യമായ ക്രമീകരണങ്ങള് പൊതുസമൂഹത്തിൽനിന്നും ഉണ്ടാവേണ്ടതും വളരെ അത്യാവശ്യമാണ്